ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവരേക്കാളും ശരീരഭാരം കുറക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ ഗ്രാമത്തിൽ പ്രധാനമായിട്ടുമുള്ളത് കാരണം ഇന്ന് ശരീരം ഭാരം കൂട്ടാനായിട്ട് ആരും തന്നെ ശ്രമിക്കുന്നില്ല ഉള്ള ഭാരം നിലനിർത്തുക അല്ലെങ്കിൽ കുറക്കാനാണ് പലരും ശ്രമിക്കുന്നത് അപ്പം അതിനുള്ള നാട്ട് വൈദ്യങ്ങൾ എൻ്റെ അറിവിൽ ആരും ശ്രമിക്കുന്നില്ല പിന്നെ നമ്മുടെ പ്രസവ ശേഷമൊക്കെ അതിൻ്റെ രക്ഷയോടനുബന്ധിച്ച് അരിഷ്ടങ്ങൾ ലേഹ്യങ്ങൾ മുതലായവയൊക്കെ കഴിച്ച് ശരീര ഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവരുണ്ട് അല്ലാതെ നാട്ട് വൈദ്യങ്ങളൊന്നും ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രചാരത്തിലില്ല ആധികാരികമായി ചെയ്യുന്നവരുമില്ല പിന്നെ ഇവിടങ്ങനെ നാട്ട് വൈദ്യങ്ങൾ ആരും പരിശീലിക്കാറില്ല ആയുർവേദ ഡോക്ടറുകളോ അലോപ്പതി ഡോക്ടറുകളേയോ അവരെ ആശ്രയിച്ചിട്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശരീരഭാരം കൂട്ടാനും കുറക്കാനും ശ്രമിക്കുന്നവരാണ് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ